നമ്മൾ ഇപ്പോൾ ഇന്ത്യന്റെ പല പലഭാഗത്തു ചെന്നാലും മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല അപ്പോൾ മലയാളികൾ എന്നുപറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ മാതൃ ഭാഷയിൽ പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ഇപ്പോൾ എന്താണോ നമ്മള് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മള് മലയാളം അറിയാത്ത ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെന്തായാലും നമുക്ക് മലയാളം പറയാതെ രക്ഷയില്ല ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാലും ഹിന്ദി പറഞ്ഞാലും ഹിന്ദി അറിയുന്ന ആളാണെങ്കില് ഇടയ്ക്ക് മലയാളം കയറി പോകും മലയാളത്തില് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് മലയാളത്തില് അമ്മ എന്നോ അങ്ങനെന്തെങ്കിലും വിളിക്കുക ആണെങ്കില് ആ നീ മലയാളി അല്ലെന്ന് ഒരു ചോദ്യം അവര് ചൊദിക്കും ആ പിന്നെ നമുക്ക് അവിടെ മലയാളികളാണെങ്കില് നമുക്ക് മലയാളത്തില് എന്തുവേണമെങ്കിലും സംസാരിക്കാം ഇന്ന ഹിന്ദി വേണം ഹിന്ദി അങ്ങനെ സംസാരിക്കണ്ട കാര്യമില്ല അപ്പോൾ അവിടെ ഉള്ളവര് കൂടുതലും മലയാളികളാണെങ്കില് നമ്മളുടെ ഒരു മാതൃ ഭാഷ അവിടെ എന്തായാലും ഉണ്ടാകുമല്ലോ നമുക്ക് ഇപ്പോൾ ചെന്നുകഴിഞ്ഞാല് ഇപ്പോൾ ഒരു കടയില് ചെന്നുകഴിഞ്ഞാൽ അപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊന്ന് മലയാളത്തില് സംസാരിച്ചാൽ അവര് ചോദിക്കും നീ മലയാളി അല്ലെ ആ അതേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എളുപ്പമാണ് ഇപ്പോൾ ഹിന്ദി അറിയാത്ത ഒരാളാണെങ്കില് പോയികഴിഞ്ഞാല് ഇപ്പോൾ മലയാളതിളെങ്ങെനെങ്കിലും മലയാളവും ഇംഗ് ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം കൂടി കലർന്നിട്ടാണ് അവര് സംസാരിക്കുക അപ്പോൾ മലയാളം അവിടെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ മലയാളികളാണെങ്കിൽ നല്ല രീതിയിൽ മലയാളം പറയുകയും ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് പുറം നാട്ടിലും നമ്മളുടെ നാട്ടില് മാത്രമാണ് ഈ മലയാളത്തിന് ഒരു വലിയ വില കൊടുക്കാത്തത് ഇംഗ്ലീഷ് കൂട്ടികലർത്തിയാണ് സംസാരിക്കുന്നത് പക്ഷെ പുറം നാട്ടിലൊക്കെ മലയാളത്തിന് നല്ല വിലയാണ് കാരണം അവിടെ ഉള്ളവര് കൂടുതലും മലയാളത്തിലാണ് സംസാരിക്കുന്നത് അവിടെ ഹിന്ദി കേട്ട് കേട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ടൈമില് ഈ മലയാളം കേൾക്കുമ്പോളായിരിക്കും അവർക്ക് കുറച്ചുകൂടി രസമായിട്ട് തോന്നുന്നത്